ഹലോ ഹലോ അതെ ട്രാവൽസാണ് ആ പറയണം സാറേ എവിടെപ്പോകാൻ എവിടെപ്പോകാനാണ് താല്പര്യപ്പെടുന്നത് ഓക്കെ സാറേ അപ്പോൾ നമുക്ക് എ എന്താന്നു പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരം സജസ്റ്റ് ചെയ്യാം സാറേ തിരുവനന്തപുരത്താകുമ്പം ആ കുഴപ്പം കുഴപ്പമില്ല സാറേ നമുക്കെന്തൊക്കെയായിപ്പം മൗണ്ടൈൻസ് ആണെങ്കിൽ നമുക്ക് പൊൻമുടി ഹിൽസിൽ ഒരു ഒരു ദിവസത്തെ സ്റ്റേ ചെയ്യാം അതുപോലെ തന്നെ ബീച്ചിലാണ് ബീച്ചിലാണെങ്കിൽ നമുക്ക് കോവളം ബീച്ച് ശംഖുമുഖം ബീച്ച് അതുപോലെ കുറച്ചു ബീച്ചുണ്ട് സാറേ അപ്പോൾ അവിടെ അതുപോലെ തന്നെ കന്യാകുമാരീൽ വേണമെങ്കിൽ നമുക്കൊന്നു നോക്കാം കാര്യം തൊട്ടടുത്താണ് അപ്പോൾ അവിടെയാണെങ്കിൽ നമുക്ക് രണ്ട് ദിവസം കറങ്ങി നമുക്ക് ചുറ്റിക്കറങ്ങി കാണാനുള്ളതൊക്കെയുണ്ട് പിന്നെ ഈ ഹി ഹിസ്റ്റോറിക്കൽ മ്യൂസിയത്തിൻ്റെ കാര്യം പറയാനാണെൽ നമുക്ക് ജോ നേപ്പിയർ മ്യുസിയം ഉണ്ട് സാറേ തിരുവനന്തപുരത്ത് അവിടെയാണെങ്കിലും ഒരു ഒരു ഒരു വൺ ഡേ നമുക്ക് സ്പെൻഡ് ചെയ്ത് കാണാനും തൊട്ടടുത്ത് സൂവും കൂടുണ്ട് സാറേ ആ വണ്ടർലേ വണ്ടർലെത്തന്നെ പോകണം എന്നു നിർബദ്ധമുണ്ടോ സാറേ ഏതെങ്കിലും അമ്യൂസ്മെൻറ് പാർക്ക് മതിയോ എ എന്നാണ് സാറേ ഉദ്ദേശിക്കുന്നത് ഓ അമ്യു അമ്യൂസ്മെൻറ് പാർക്കാണെങ്കിൽ ശെരി സാറേ നമുക്ക് ട്രിവാൻഡ്രത്തു വെമ്പായത്ത് ഹാപ്പിലാൻഡെന്ന് പറയുന്നൊരു അമ്യൂസ്മെൻറ് പാർക്കുണ്ട് സാറേ അപ്പം ആ അപ്പം ഹാപ്പിലാൻഡിൽ ജസ്റ്റ് നമുക്ക് നോക്കാം എൻക്വയറി ചെയ്തുനോക്കാം ഇതെന്നെത്തേക്കാണ് സാറേ പാക്കേജ് ചെയ്യുന്നത് രണ്ട് മാസം കഴിഞ്ഞാണ് തന്നെ നമുക്കു പൊൻമുടി പൊൻമുടി ഹിൽസിൽ സ്പെഷ്യലായിട്ട് ഓഫറും കാര്യങ്ങളൊക്കെയുണ്ട് സാറേ വൺ നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അവസരം കിട്ടും അതുപോലെ തന്നെ ബോണക്കാട് എസ്റ്റേറ്റും ഈ ഒരു പാക്കേജിക്കൂടെ വരുന്നുണ്ട് പിന്നെ ക്യാമ്പ് ഫയറും വരുന്നുണ്ട് അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ഫുഡ് ഫ്രീയാണ് കേട്ടോ അവിടെ ഫുഡ് ആ വകുപ്പ് ആ ആ രണ്ട് ബസ്സ് ഓക്കെ സാറേ അപ്പോൾ ട്രാവ ടൂർ ബസ്സ് രണ്ടെണ്ണം നമുക്ക് സെറ്റ് ചെയ്യാം സാറേ മിതമായ നിരക്കിൽ നമുക്കുള്ളത് ചെയ്തുതരാം ഇതെല്ലാം കൂടെ ഒരു പാക്കേജ് എത്രയാകും എന്നുള്ള കാര്യം ഞാൻ ഡീറ്റൈൽഡ് ആയിട്ട് സാറ് എവ ഈ ഞാൻ പറഞ്ഞ കാര്യം ഓക്കെ ആണെങ്കിൽ ഒന്ന് സ്ക്കൂൾ മാനേജ്മെൻറോട് സംസാരിച്ചതിനുശേഷം സാറെന്നെ വിളിച്ചാൽ മതി നമ്മക്കെത്രയെന്നു വെച്ചുകഴിഞ്ഞാൽ ഡീറ്റൈൽഡ് ആയിട്ട് നമുക്കു പാക്കേജെത്രയാന്നു സംസാരിക്കാം ആ അങ്ങനെ കൊ അങ്ങനെ കൊണ്ടുപോകാം സാറേ കാര്യമെന്നു വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ ഹിസ്റ്റോറിക്കൽ മ്യുസിയത്തിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോഴേ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നമുക്കവിടുന്നു കുട്ടികളെയൊക്കെ നോക്കാൻ വേണ്ടീട്ടും കുറച്ചാൾക്കാർ വേണം കാര്യമെന്നു വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ടീച്ചേഴ്സെത്ര പേര് വന്നുകഴിഞ്ഞാലും ശരി അവർ ബാക്കി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ പറഞ്ഞുകൊടുക്കുന്നതിൻ്റെ തിരക്കിലൊക്കെ ആയിപ്പോകും കാര്യമെന്നു വെച്ചുകഴിഞ്ഞാൽ ഈ പാർട്ടിപരമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞു കേൾപ്പിക്കാൻ വേണ്ടീട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഈ കുട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകാതിരിക്കാൻ വേണ്ടീട്ട് കൊച്ചുപിള്ളേരല്ലേ ഓടിപ്പോകാതിരിക്കാൻ വേണ്ടീട്ട് കുറച്ചു കെയർടേക്കർമാരേം കൂടെ ആവശ്യമുണ്ട് നമ്മളതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാറേ അവർക്ക് അവർക്ക് നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് എമൗണ്ടും കാര്യങ്ങളൊന്നും പേ ചെയ്യുവൊന്നും വേണ്ട ആ ബസ്സിന് ബസ്സിനകത്ത് എത്ര കപ്പാസിറ്റിയുള്ള സീറ്റ് വേണേലും നമുക്ക് ചെയ്യാം സാറേ അതെത്ര പേരുണ്ടെന്നു കുട്ടികളൊന്നു പറഞ്ഞതിന് ശേഷം സാറെന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഓ ഓ ഓ ശരി ശരി ആ ആ ഇപ്പം പാക്കേജ് എങ്ങനെ പോയിക്കഴിഞ്ഞാലും പെർ സ്റ്റുഡൻറ് പെർ ഹെഡ് ഒരു ആയിരം രൂപ സാറേ ആയിരം രൂപാക്കകത്തു നിൽക്കുന്ന രീതീൽ നമുക്ക് ചെയ്യാം ആ ആയിരം രൂപയെ ആകത്തുള്ളൂ പെർ ഹെഡ് ശരി ശരി ശരി പറഞ്ഞേര് ശരി